എനിക്ക് ബൈക്കിൽ സന്ദർശിക്കാൻ താല്പര്യമുള്ള സ്ഥലം ഊട്ടി കൊടൈക്കനാൽ എന്നുള്ള തമിഴ്നാട് ഭാഗത്തുള്ള സ്ഥലങ്ങളെയാണ് കാരണം എന്തെന്നു വച്ചാൽ പലരും സ്റ്റോ ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഒക്കെ ആയി സ്റ്റോറി ഇടുന്നതുകണ്ടു നല്ലൊരു ആഗ്രഹമുണ്ട് അതുപോലെ കോടമഞ്ഞുള്ള നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന നമുക്ക് സോളോ ഒറ്റയ്ക്കു പോവുകയാണേലും ബൈക്കില് ഒറ്റയ്ക്ക് ആസ്വദിച്ചുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കു പോകണമെന്നുള്ള ഒരാഗ്രഹമാണ് അതുപോലെ തന്നെ കാശ്മീര് പോലത്തെ കാശ്മീർ കുളു മണാലി അതുപോലത്തെ സ്ഥലങ്ങളിലേക്കു പോകാനും ആഗ്രഹമുണ്ട് പക്ഷെ നിലവിലത്തെ സാഹചര്യം സാഹചര്യങ്ങളനുസരിച്ച് നടക്കില്ലാത്തതുകൊണ്ടാണ് നടപ്പിലാവുന്ന നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് കേരളത്തിലെ ഒരാളെന്ന നിലയ്ക്ക് ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലമാണ് ഊട്ടി കൊടൈക്കനാൽ എന്നൊക്കെ അപ്പോള് പലരും സ്റ്റോറി ഇടുന്നതു കാണുമ്പോള് നല്ല മഞ്ഞ് കോട തണുപ്പ് അപ്പോള് ആ സീസണാവുകയും വേണം ഡിസംബർ ജനുവരി കാലഘട്ടത്തില് ആ ടൈം ആവുമ്പോൾ പോവാനാണ് എൻ്റെ ഒരാഗ്രഹം അതുപോലെ മറ്റുള്ളവർക്ക് എൻ്റെതായിട്ടുള്ള സജഷൻ നൽും നിർദ്ദേശം നൽകുാണെങ്കി ഞാൻ ഐ വുഡ് ലൈക്ക് റ്റു ഡു ദാറ്റ് ആ സഥലങ്ങൾ സജസ്റ്റ് ചെയ്യാൻ തന്നെ തന്നെയായിരിക്കും എൻ്റെ ഒരു നിഗമനം ഉണ്ടാവുക പിന്നെ പറയുകയാണെങ്കിൽ ഗോവ കുളു മണാലി കുളു മണാലിയൊക്കെ എല്ലാവരും പോകുന്ന സ്ഥലമാണ് പക്ഷേ അത് ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോളൊരാളിന്ത്യ ട്രിപ്പെന്ന മൂഡിൽ അതൊരു റോയൽ എൻഫീൽഡ് അതൊക്കെയൊരു പല സിനിമകളിലും പറഞ്ഞു ചിത്രീകരിച്ച ഒരു സംഭവമാണ് ഈ റോയൽ എൻഫീൽഡ് പോലുള്ളൊരു നല്ല മൈലേജുള്ളൊരു വണ്ടിയിൽ നല്ലൊരു ക്ലാസ്സിക്കായി നല്ല വൈബിൽ ആ രീതിയിലൊന്നു കറങ്ങാൻ പോവുക എന്നുള്ളത് ഫ്രണ്ട്സിന്റൂടെ കൂടെയാണെങ്കിലും അതിനതിന്റേതായിട്ടുള്ള വൈബുണ്ടാവുമെങ്കിലും ഞാൻ ഞാൻ പ്രിഫർ ചെയ്യുക സോളോ ട്രിപ്പാണ് കാരണം ഞാനൊരു ഇൻട്രോവെർട്ടായിരിക്കെത്തന്നെ എനിക്ക് എന്റേതായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് എന്റെയൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അപ്പോള് ഞാനിങ്ങനെ കറങ്ങുന്നതാണെങ്കിലും ആസ്വദിക്കുന്നതാണെങ്കിലും എനിക്കെൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അപ്പോള് ഞാൻ കൂടുതലായും എൻ്റെ ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ് പ്രകൃതിയിലെ പുഷ്പങ്ങളെയും മറ്റു മരങ്ങളെയും അല്ലെങ്കിൽ മഞ്ഞിനെയും അല്ലെങ്കിൽ സൂര്യ രശ്മികളെയും പകർത്തിയെടുക്കാനുള്ള ഒരാഗ്രഹമുള്ള ഒരാളാണു ഞാൻ അപ്പോള് നല്ല ഒരു ക്ലൈമറ്റുള്ള ഊട്ടി കൊടൈക്കനാൽ അങ്ങനത്തെയൊരു സ്ഥലത്തേക്കു പോകുമ്പോൾ അതിന്റേതായിട്ടുള്ളൊരു വൈബ് എനിക്കുണ്ട് അപ്പോള് ഞാന് മറ്റുള്ളവരോടു നിർദ്ദേശിക്കുയാണെങ്കില് അവര് സ്വന്തമായി സ്വന്തം ഫോട്ടോയും ഒരു ഓർമ്മപ്പെടുത്തുന്നതിന് എടുക്കുന്നതിന് ഉപരി പ്രകൃതിയെ സ്നേഹിക്കാൻ നോക്കുക പ്രകൃതിയുടെ ഫോട്ടോ എടുക്കാൻ നോക്കുക പ്രകൃതിയെ എങ്ങനെ ഒപ്പിയെടുക്കാം നമ്മുടെ ഓർമ്മകളെ നമ്മളെ ഉള്ളിലുള്ള ഓർമ്മകളെ ഒരു പച്ചകുത്തലായി വയ്ക്കുക നമ്മളെ മനസ്സിൽ ഉറപ്പിച്ചുവയ്ക്കാനായി ആ നിമിഷങ്ങള് ഉപയോഗിക്കുക